ഹലോ സാർ ഞാൻ രാവിലെ ഒരു പത്ത് മണിക്ക് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് എയർപ്പോർട്ടിലേക്ക് പോവാൻ വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത് പക്ഷേ എനിക്ക് ആ ആ അത് എനിക്ക് ക്യാൻസല് ചെയ്യണമായിരുന്നു ഞാനത് റദ്ദാക്കാൻ വേണ്ടിയാണ് വന്നത് കാരണം ഞാൻ എയർപ്പോർട്ടിലേക്ക് വേറൊരു ഓട്ടോ വിളിച്ചിട്ട് പോയി അപ്പം ഞാൻ ക്യാഷ് സാറിന് പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി അപ്പോൾ എനിക്കതൊന്ന് റിട്ടേണ് അയക്കുവോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഞാനിപ്പോൾ വിളിച്ചത് കാരണം എനിക്ക് ഇപ്പം സാറിന് എനിക്ക് സാറിൻ്റെ സാറിൻ്റെ ക്യാബെനിക്കുവേണ്ട കാരണം ഞാനിപ്പം വേറൊരു ക്യാബ് വിളിച്ച് വന്നു അപ്പോൾ എനിക്കത് ക്യാ ആ ഓഡറ് ക്യാൻസല് ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്കെൻ്റെ ക്യാഷ് തിരിച്ചുവേണമായിരുന്നു സാർ കാരണം ഞാനിപ്പോൾ എനിക്ക് വേറെ ഒരു പെട്ടെന്ന് വരണ്ട ഒരു ആവശ്യം വന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു സാറിനെ വിളിച്ചു ബുദ്ധിമുട്ടിക്കണല്ലോന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒരു ഓട്ടോ കണ്ടപ്പോൾ ഞാൻ നേരത്തേയത് വിളിച്ചുപറഞ്ഞു എനിക്ക് കുറച്ച് നേരത്തേ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തേപ്പോകുന്നു അതുകൊണ്ട് സാറാ കാഷ് ഇന്ന് റിട്ടേണയക്കണം കെട്ടോ സാർ അപ്പം ശരി എന്നാൽ ഞാൻ അത് പറയാൻ വേണ്ടിയാരുന്നു വിളിച്ചത്